അഞ്ച് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഒൻപത് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒരുലക്ഷത്തി എണ്ണൂറ്റി എൺപത് ആറായിരത്തി എണ്ണൂറ്റി എൺപത് പതിനായിരത്തി ഒരുനൂറ്റി അറുപത്തി ഒൻപത്